ലോസ്ഏഞ്ചൽസ് സാൻഫെർണാഡോ ഡേൽ വാലേ ഡി കണ്ണാ മാക്കാ സാൻ മൈ ജുവൽ ഡി ടോക്കിമാൻ പ്യൂട്ടോ ബെങ്കിറിസോ മൊറേനോ വില്ല മറിയാ ഡെൽ ട്രെൻ ഹോ